ഓക്കെ നിങ്ങൾക്ക് ഇടുക്കിയിലെ ടീ പ്ലാൻറേഷനെക്കുറിച്ചാണ് അറിയേണ്ടത്

നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ തേയില ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കൊളുക്കുമല കൊളുക്കുമലയിൽ രാവിലെ പോയിട്ടൊരു ചായ കുടിക്കുമ്പോൾ സൂപ്പർ ആണ് എന്ത് തരം ചായയാണ് വേണ്ടത് ഓക്കെ ഇതിന് ഗ്രേഡ് വ്യത്യാസം ഉണ്ട് നമുക്ക് എ ഗ്രേഡ് ഒക്കെ എടുക്കുവാണെങ്കിൽ പൈസ കൂടുതലായിരിക്കും പക്ഷേ ബി ഗ്രേഡ് സി ഗ്രേഡ് ആണത് അനുസരിച്ച് പൈസ കുറയും ക്വാളിറ്റി നല്ല വ്യത്യാസം ഉണ്ട് അതിൻ്റെ കടുപ്പവും അതിൻ്റെ കളറും ഒരു ടേസ്റ്റും വ്യത്യാസം ഉണ്ട് അതിൻ്റെ പ്രോസസ്സിംഗിന് വ്യത്യാസം വരുന്നത് അതെ അതെ അതെ നമ്മൾ ഈ മസാല ടീ എന്ന് പറഞ്ഞാൽ ശരിക്കും ചായപ്പൊടിക്കകത്ത് വേറെ ഫ്ലേവർ ചേർക്കുന്നതാണ് മസാല ടീ ഓക്കെ നമ്മൾ ഗ്രീൻ ടീ ഒരുപാട് ഔഷധഗുണം ഉള്ളതാണ് മറ്റേ നല്ലതരം ചായപ്പൊടിയും നമുക്ക് തരാൻ പറ്റും ഇവിടെ ഒരു സ്ത തേയില തോട്ടം കണ്ട് സാധനം വാങ്ങിക്കണോ അതിനുള്ള സൗകര്യവും ഉണ്ട് ഓക്കെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഉണ്ടല്ലോ മൂന്നാർ ഉണ്ട് കൊളുക്കുമല ഉണ്ട് കാൽവരി മൗണ്ട് ഉണ്ട് പാലാർ ഉണ്ട് ഇവിടെയെല്ലാം വളരെ ഓരോ സ്ഥലത്തും വളരെ വ്യത്യസ്തമായ അരോമയാണ് ചായയ്ക്ക് ഉള്ളത് അതായത് എല്ലായിടത്തും ഒന്ന് പോവുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഉള്ളത് നോക്കി വാങ്ങിക്കാൻ പറ്റും റേറ്റ് ഇവ് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ശരിക്കും ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ കുറവ് അളവാണെങ്കിൽ കൂടുതൽ പൈസ ആവും കൂടുതൽ അളവാണെങ്കിൽ കുറവ് പൈസയേ ആവുളളൂ ഓക്കെ ഈ അതായിരിക്കും നല്ലത് ഓക്കെ ഓക്കെ പിന്നെ കൊളുക്കുമലയിലെ ചായയാണ് ലോക പ്രശസ്തമായിട്ടുള്ളത് പിന്നെ കാൽവരി മൗണ്ടിൽ ചായ ഉണ്ട് കാൽവരി മൗണ്ടിലെ ചായയും വളരെ നല്ല ചായയാണ് പിന്നെ പാലാറിൽ പോവുവാണെങ്കിൽ കാൽവരി മൗണ്ട് ഫാക്ടറി ഉള്ളതാണ് ആ പിന്നെ നമുക്ക് പാലാറിൽ വുണ പാലാറിലാണെങ്കിൽ ഇവിടെ ഓർഗാനിക് ടീ ഒരുപാട് ഉണ്ട് ഓക്കെ ശരി അപ്പം വിളിച്ചാൽ മതി കേട്ടോ